എൻ്റെ അടുക്കളയില് ഞാനുപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങള് ഒന്ന് മിക്സി പിന്നെ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഗ്യാസ് ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെക്കാലത്ത് ഇത്തരം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു മൂന്ന് പണ്ടത്തെ മൂന്ന് ഉപകരണങ്ങൾ ചെയ്യുന്ന പണിയാണ് ഇന്ന് മിക്സി ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് പണ്ടുള്ള വീടുകളില് ഒരു ഒരലുണ്ടാവും പൊടി പൊടിക്കാൻ അല്ലെങ്കിൽ കാപ്പി പൊടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകള് പൊടിക്കാൻ ഇതിനൊക്കെ ആയിട്ട് ഒരു ു ഉരലും ഒരു ഉലക്കയും ഉണ്ടാവും പിന്നെ ഒരമ്മിക്കല്ലുണ്ടാവും അപ്പത്തിന് അരയ്ക്കാൻ മാവ് ദോശ ഇഡ്ഡലി ഇതിനെയെല്ലാം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാട്ടുകല്ല് പിന്നൊരമ്മിക്കല്ലുണ്ട് അതെന്തിനാണ് നമ്മള് കറിക്കരയ്ക്കാൻ കറിക്കൊതുക്കാൻ ഇതിനെല്ലാം കൂടി ഉപയോഗിക്കുന്നത് ഇന്നത്തെക്കാലത്ത് ഈ മൂന്ന് ഈ മൂന്ന് സാധനങ്ങളും ചെയ്യുന്ന പണിയാണ് നമ്മുടെ മിക്സി ഒറ്റയ്ക്ക് ചെയ്യുന്നത് അല്ലേ പക്ഷെ പണ്ടുള്ള ആൾക്കാരോട് നമ്മള് ചോദിച്ചു നോക്ക് ഏത് കറിക്കാണ് ടേസ്റ്റെന്ന് അവര് പറയും അമ്മിയിലരച്ച് വയ്ക്കുന്ന കറിക്കാണ് ടേസ്റ്റെന്ന് മിക്സിയിലരയ്ക്കുന്ന കറി ടേസ്റ്റില്ല എന്നല്ല പക്ഷെ അവർക്ക് കുറച്ചുംകൂടി അവരുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അമ്മിയിലരച്ചുവെച്ച കറികൾക്കായിരിക്കും ഞാനിപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആ പണ്ടത്തെ കറീൻ്റെ ടേസ്റ്റൊന്നും ഇതിനു കിട്ടുന്നില്ലല്ലോയെന്ന് അത് മിക്സീൻ്റെ കുറ്റമല്ല അവരുടെ മനസ്സുമായിട്ട് അത് പഴകി ആ ഒരു ചെറുപ്പത്തില് ആ ഒരു രുചി ആ കല്ലിൽ അരച്ചുകിട്ടുന്ന മെല്ലെനെ മെല്ലെനെ അരച്ചു കിട്ടുന്ന ആ ഒരു രുചി അവരുടെ വായില് ഇപ്പോഴും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് ഇന്നത്തെക്കാലത്തെ കുട്ടികളെ ഇതൊന്നും കണ്ടിട്ടുണ്ടോന്നു പോലും എനിക്കറിയത്തില്ല പണ്ടത്തെകാലത്ത് കറൻ്റ് ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു നമ്മുടെ വീട്ടില് ഇത്രയും സാധനങ്ങള് ഉള്ളതുകൊണ്ട് നമ്മുടെ അമ്മമാർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല അതരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കറൻ്റില്ലാതെ ഒരു ദിവസം നിൽക്കുമോ ഒരു ദിവസം കറൻ്റ് ഇല്ലെങ്കില് നമ്മുടെ അടുക്കളയിലെ പണിയെല്ലാം താറുമാറായിക്കിടക്കും കാരണം മിക്സി ഇല്ലാതെ കറിക്കരയ്ക്കാൻ പറ്റില്ല ഗ്യാസെങ്ങാനും തീർന്നുപോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പട്ടിണി

ഇത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന ഓരോ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിത ശൈലിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തത് പണ്ടത്തെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തില് അമ്മ ഇതുപോലെ അമ്മിക്കല്ലില് അരച്ചരച്ച് നല്ല മഷിപോലെ അരച്ച് കറി വയ്ക്കുന്നത് അന്നൊക്കെ നമ്മൾ പിള്ളേർക്ക് കൊതിയായിരുന്നു ഒന്നരയ്ക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് കാരണം ഇത് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ ആടി ആടി അരക്കുന്നത് കാണാൻ അപ്പോൾ നമ്മൾ വിചാരം ഇത് ഇത്രയേ ഉളളൂ ആട്ടിയാട്ടി ആക്കിയാൽ മതിയെന്ന് പക്ഷെ രണ്ട് പ്രാവശ്യം അരച്ച് കഴിയുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസിലാവത്തുള്ളു എന്നിട്ടും അവർ മഷിപോലെ അരച്ച് നല്ല രുചിയുള്ള ഭക്ഷണം നമുക്ക് തന്നുകൊണ്ടിരുന്നത് അല്ലേ ഇന്നത്തെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചെറിയ കുട്ടികളും ഭൂരിഭാഗം പേരും ഇങ്ങനത്തെ ഉപകരണങ്ങൾ ഈ ഈ പണ്ടത്തെ അമ്മിക്കല്ല് ആട്ടുകല്ല് വിറകടുപ്പ് ഇതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ലാന്ന് സിറ്റിയിലൊക്കെയുള്ള താമസിക്കുന്ന പട്ടണത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊന്നും വിറകടുപ്പില്ല അവര് ഗ്യാസ് തന്നെയാ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ വിറകടുപ്പുണ്ട് ഞങ്ങൾ കഞ്ഞിയും ചോറും എല്ലാം വിറകടുപ്പിൽ തന്നെയാണ് ആക്കുന്നത് പക്ഷെ എത്രതന്നെ വിറകടുപ്പുണ്ടെങ്കിലും ഗ്യാസില്ലാതായാൽ നമ്മുടെ ജീവിതം പട്ടിണിയാവും പിന്നെ ഓരോ രുചി എനിക്ക് തോന്നുന്നു ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ് ഒരു രുചി കൂടുതൽ അടുപ്പിൽ വെക്കുന്നതിനാന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ അതിൽ കറി വെക്കുമ്പം നമുക്കൊരു പ്രത്യേക ഒരു ഫീലായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരനുഭൂതി അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും എല്ലാം നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾക്ക് നല്ലത് തന്നെയാണ് അതിൽ യാതൊരു കുറ്റവും പറയാനില്ല പക്ഷെ നമ്മൾ എത്രതന്നെ നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മൾ മറന്ന് പോയ നമ്മൾ വിസ്മരിച്ച് പോയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരു പത്ത് വർഷം മുന്നേ ഉള്ള നമ്മളല്ല ഇപ്പോൾ നമ്മൾ പത്ത് വർഷം ഒരു ഇരുപത് വർഷം മുന്നേയുള്ള ആൾക്കാ ജീവിത ശൈലിയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോ അല്ല ഇന്ന് നമുക്കുള്ളത് കാലം മാറുന്നതിനനുസരിച്ച് ഓരോ വർഷം കഴിയുംതോറും നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്ക് എത്രതന്നെ നമ്മുടെ വീട്ടിൽ അമ്മമാർക്കും പ്രായം ചെന്ന ആൾക്കാർക്കും നമ്മളിത്തരം സാധനങ്ങളുടെ നല്ല രുചികരമായ ഭക്ഷണം അല്ലെങ്കിൽ അരച്ച നല്ല ദോശയോ ഇതൊക്കെ ചുട്ടു കൊടുത്താലും അവർ പറയുന്നതെന്താ പണ്ടത്തെ ആ ഒരു രുചിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതൊക്കെ നമ്മുടെ ഒരു മറവിയിലേക്ക് ആണ്ടുപോയ ഒരു സംഭവങ്ങൾ ഒരു രുചിക്കൂട്ടുകളാ അതൊക്കെ എന്താണതിൻ്റെ ചേരുവ കൂട്ട് ഒന്ന് ആ ഒരു ചേരുവ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കറിക്കുപയോഗിക്കുന്നത് പക്ഷെ എന്താ പറയുക അതിലൊരു ചെറിയ എന്തോ ഒരു ഒരു വ്യത്യാസം ആ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിലും ഇന്ന് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാ